സാങ്കേതിക വിദ്യാന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നല്ല രീതിയില് ഉള്ളൊരൂ പുരോഗതിയും കാര്യങ്ങളൊക്കേ സാങ്കേതിക വിദ്യയ്ക്കുണ്ട് ഇപ്പം നമ്മുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മള് സെർച്ച് ചെയ്യുന്നത് നമ്മള് നെറ്റിലൂടെയാണ് അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെറ്റിലൂടെയും എല്ലാം അറിയാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ നമുക്ക് ഇപ്പം എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്ന് കഴിഞ്ഞാൽ തന്നെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടീട്ട് സാധിക്കുന്നെയാണ് ഇപ്പോൾ എന്തെങ്കിലും എം ആർ ഐ സ്കാനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല രീതിയിലുള്ള മിഷിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഗുണമാണ് ഇണ്ടാക്കിയിട്ടുള്ളത് ഇപ്പംന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ആധുനിക കാലഘട്ടം കാര്യങ്ങളൊക്കെയായിട്ടാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് എന്ത് ഇപ്പം ഓരോ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഇപ്പോൾ വണ്ടി അടക്കം നമുക്ക് എല്ലാം നമ്മടെ കൈ വിരൽ തുമ്പിൽ നമുക്ക് കിട്ടും ഇപ്പോൾ നമുക്കൊരു വണ്ടി വിളിച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു സ്കൂട്ടി പോലും ഇല്ലാത്ത വിടുകളൊക്കേ വളരേ അധികം കുറവാണ് ഇപ്പം നമുക്ക് അതൊക്കെ നല്ല രീതിയില് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് മെച്ചപ്പെട്ട രീതിയില് ഉപയോഗിക്കുന്ന ആൾക്കാര് ഉണ്ട് അപ്പോൾ അതില്ന്നൊക്കെ നല്ല രീതിയിലുള്ള പുരോഗതിയും കാര്യങ്ങളൊക്കേ നമ്മള് ഇപ്പോൾ നല്ല രീതിയിലാണ് പൊയ്കൊണ്ടിരിക്കുന്നത്